ഹലോ ഡോക്ടർ അല്ലേ ആ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര പനിയും ജലദോഷവും വയറ് വേദനയൊക്കെ ഉണ്ടായിരുന്നു ആ അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഇല്ല കാണിച്ചിട്ടില്ല

ആ ഇന്നലെ ഒരു മരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന് പോയപ്പോൾ ഒന്ന് മഴ നനഞ്ഞായിരുന്നു പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടില്ല പഴംപൊരി അങ്ങനെ എണ്ണ കടികൾ രണ്ട് ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു വേറെ വേറെ ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ല എണ്ണക്കടി കഴിച്ചിട്ടുണ്ടായിരുന്നു ആ അതെ അതെ ആ അതെ ഇല്ല പുറത്തുനിന്നായിരുന്നു കഴിച്ചത് ആ

ഇല്ല ഗുളികയൊന്നും കഴിച്ചിട്ടില്ല ഇല്ല ഇല്ല അല്ലാണ്ട് ഇല്ല പാരസെറ്റാമോൾ ഒന്നും ഇല്ല കയ്യിൽ കയ്യിൽ

മൂന്ന് നേരം അല്ലേ ആ ഓക്കെ ഓക്കെ ആ ആ വയറ് വേദന കുറയാനിപ്പം വയറുവേദനയും അതിന്റെ ഒപ്പം കുറയുവോ അതോ അതിന് വേറെ മെഡിസിൻ ഉണ്ടോ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ ആ ആ ജലദോഷം ഉണ്ട്

ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ബ്ലഡ് ടെസ്റ്റ് ആണോ ആ ആ ഓക്കെ അത് നാളെ ആ നാളെ നാളെ ടെസ്റ്റ് ചെയ്തിട്ട് വരാനാണോ ആ ആ ഓക്കെ ഓക്കെ ആ ആ ശരി ആ ഓക്കെ ആ ആ ഓക്കെ ആ എന്നാൽ ഓക്കെ നാളെ നോക്കിയിട്ട് വിളിക്കാം മ്